വത്സലേ ഞാൻ ഇന്നലെ തിരുവട്ടാറ്റിൽ നിന്ന് വന്നതേ ഉള്ളൂട്ടാ അപ്പോള് എനിക്കാണെങ്കില് പാസ്സ്പോർട്ട് അമേരിക്കയില് മോളടുത്ത് പോകാൻ വേണ്ടീട്ടെ പാസ്സ്പോർട്ടൊന്ന് പുതുക്കണമായിരുന്നു പക്ഷേ എൻ്റെ അഡ്രസ്സ് ഇവിടുത്തെ അഡ്രസ്സാണ് കൊടുക്കേണ്ടത് ഈ വീട്ടിലെ അഡ്രസ്സ് കൊടുക്കാനായിട്ട് ഞാൻ ഇപ്പോള് എന്തോന്ന് ചെയ്യും എൻറ്റയിലാണെങ്കില് പാസ്സ്പോർട്ട് ഇതിന് വീട്ടിൻ്റെ അഡ്രസ്സുണ്ട് ആധാർ കാർഡുണ്ട് ബാക്കി കാര്യങ്ങള് എന്തൊക്കെയാണ് വേണ്ടതെന്ന് എനിക്ക് ഒരൈഡിയയും കിട്ടണില്ല അതിൻ്റെ ഒരു ഉപദേശം തന്നാൽ ഒന്ന് വത്സല മനസ്സിലാക്കിത്തരാൻ പറ്റുമോ എങ്കില് ഒന്ന് പറഞ്ഞുതരുമോ